മലയാള ഭാഷയെന്നുപറയുന്നത് ഇന്ത്യയില് മറ്റു ഭാഷകളുമായി വളരെയധികം ബന്ധം പുലർത്തുന്നതാണ് കാരണം ഇന്ത്യയില് എവിടെ ചെന്നാലും ഒരു മലയാളം സംസാരിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുപോലെതന്നെ മലയാളഭാഷ അറിയാവുന്നവർക്ക് വേറെ ഏത് ഭാഷ പഠിച്ചെടുക്കാനും വളരെ എളുപ്പമായിട്ട് തോന്നും കാരണം നമ്മള് ഏത് രാജ്യത്ത് പോയാലും ഏത് സംസ്ഥാനങ്ങളിൽ പോയാലും അവരുടെ ഭാഷ നമ്മള് പഠിച്ചെടുത്തിട്ടാണ് നമ്മള് സംസാരിക്കുന്നത് പക്ഷെ ഒരിക്കലും ആ പുറത്തുനിന്നു വരുന്ന ആ ഒരു വിദേശിയോ അല്ലെങ്കിൽ അന്യസംസ്ഥാന തൊഴിലാളികളോ ഒരിക്കലും നമ്മുടെ മലയാളം പഠിച്ചെടുത്ത് സംസാരിക്കുന്നത് വളരെ വിരളമാണ് കാരണം അത്രയ്ക്കും മലയാള ഭാഷ പഠിച്ചെടുക്കുക എന്നുപറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളും വളരെയധികം എഫേട്ടെടുക്കേണ്ടതുമായിട്ടുള്ള കാര്യമാണ് മലയാള ഭാഷ എന്നുപറയുന്നത് നമ്മുടെ സംസ്കൃതത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞവയാണ് എന്ന് പല ഭാഷാ പണ്ഡിതന്മാരും പറയുന്നു ചിലരെന്ന് പറയുന്നത് നമ്മുടെ തമിഴിൽനിന്നും വന്നതാണെന്നു പറയുന്നു അതിന് സംസ്കൃതവുമായിട്ടും തമിഴുമായിട്ടും ബന്ധമുണ്ട് എന്നാണ് പല ഭാഷാ പണ്ഡിതന്മാരും ഇതുമായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോള് നമ്മുടെ മലയാള ഭാഷ മറ്റു ഭാഷകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇരിക്കുന്നതാണ്